എൻ്റെ ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോണാണ് റെഡ്മി എന്ന കമ്പനിയുടെ ഒരു മൊബൈൽ ഫോണാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ ഇതില് എനിക്ക് കൂടുതലും പറയാനുള്ളത് പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം ഈ മൊബൈൽ ഫോൺ ഒരു നല്ലൊരു മൊബൈൽ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇതിലെ പ്രധാനപ്പെട്ട പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സറ് തന്നെയാണ് കാരണം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ എന്താ പറയുക ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ഇതിൻ്റെ പ്രൊസസ്സറ് മികച്ച ഒരു പെർഫോമൻസാണ് കാഴ്ച വച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വളരെ ഒരു മികച്ച ഒരു ബാറ്ററി ആയിരുന്നു കാരണം ചാർജിങ്ങ് ഒരുപാട് നേരം രണ്ടു ദിവസം വരെയൊക്കെ ഇതിൽ ചാർജ് നിൽക്കാറുണ്ടായിരുന്നു അതുപോലെതന്നെ ഇതിൻ്റെ മറ്റൊരു പോസ്റ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ് വളരെ മികച്ച ചിത്രങ്ങൾ എടുക്കാനും എല്ലാം ഈ മൊബൈൽ ഫോണില് കഴിയുമായിരുന്നു ചിത്രങ്ങൾക്കുള്ള ക്ലാരിറ്റിയൊക്കെ വളരെ നല്ലതായിരുന്നു പിന്നെ ഇതിൻ്റെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ശബ്ദം സ്പീക്കർ ഇതിൻ്റെ സ്പീക്കറില് സൗണ്ട് ക്വാളിറ്റി മികച്ചതായിരുന്നു നമ്മൾക്ക് പാട്ട് കേക്കാനും എന്താണ് കോൾ വരുമ്പോൾ അറിയാനും എല്ലാത്തിനും ഇതൊരു മികച്ച ഒരു സൗണ്ട് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫോണിലുണ്ടായിരുന്നത് അതുപോൽ അതുകൊണ്ടു തന്നെ ഇതിൻ്റെ സ്പീക്കറും ഒരു മികച്ച ഒരു സ്പീക്കർ തന്നെയായിരുന്നു പിന്നെ അടുത്തൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടച്ച് സ്ക്രീന് ഇതിൻ്റെ ടച്ച് വളരെ മികച്ചതായിരുന്നു അതായത് യാതൊരു വിധ ഒരു ഹാങ്ങാവലും ഒന്നും തന്നെ ഇതിൽ ഉണ്ടായിരുന്നില്ല ടച്ചെല്ലാം വളരെ മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഫോണിൽ കാഴ്ച വച്ചത് മൊത്തത്തില് ഈ ഫോൺ എനിക്ക് വളരെ മികച്ച ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ്